എനിക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് എവിടുക്കാണെന്ന് വച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കോഴിക്കോട് നിന്നാണ് എനിക്ക് കയറേണ്ടത് ഡൽഹിയിലേക്കാണ് പോകേണ്ടത് അപ്പം ഡൽഹിയിൽ എനിക്ക് ഒരു ബിസിനസ് കോൺഫറൻസ് ഉണ്ട് അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിലേക്കാണ് പോകേണ്ടത് ടൈമും ടൈമ് ആൾമോസ്റ്റ് ഒരു പത്താം തീയ്യതിയാണ് കോൺഫറൻസ് അപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു സിക്സ് ആറാം തീയതി എങ്കിലും ഇവിടെ നിന്ന് പോവേണ്ടി വരും അപ്പം ആറാം തീയ്യതിയുള്ള ഒരു എ സി ഏസിയാണ് എനിക്ക് വേണ്ടത് അപ്പം എസിയിൽ അവൈലബിൾ ആയ സീറ്റ്സും കാര്യങ്ങളും സീറ്റുകളുടെ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ആ ഓക്കെ അപ്പം ഈ പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ടായിരുന്നു എൻ്റെ ഐഡിയയും പാസ്വേർഡും യൂസ് ചെയ്തിട്ട് എനിക്ക് എന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് അത് ഒന്ന് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി ആവശ്യണ്ടായിരുന്നു അപ്പം അതൊന്ന് കൃത്യമായിട്ട് അതിൻ്റെ പ്രൊസീജറും കാര്യങ്ങളുമൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അപ്പം എൻ്റെ അടുത്ത യാത്രകളിലും യാത്രയിൽ തന്നെ ഉപകരിക്കുന്നതുകൊണ്ട് അപ്പം കൃത്യമായിട്ട് അതിൻ്റെ ഒരു പ്രൊസീജറും കാര്യങ്ങളൊക്കെ ഒന്നു പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ആറാം തീയ്യതി എസ് യെസ് ആറാം തീയ്യതി എ സി എ സി ആണ് എ സി എ സി ഏത് ക്ലാസ്സായാലും ഫസ്റ്റ് ക്ലാസോ ഏതായാലും കുഴപ്പമില്ല പക്ഷെ ഏസിയാണ് മുൻഗണന കൊടുക്കുന്നത് ഓക്കെ താങ്ക് യു